ആ ഞാൻ ചെയ്ത എൻ്റെ ശേഖരണത്തിന്റെ വിവരങ്ങൾ രണ്ട് രീതിയിലായിട്ടാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ഡാറ്റാ ബേസ് ആയിട്ടും അല്ലെങ്കിൽ ബുക്സിൽ ആയിട്ടും ഉപയോഗിക്കുന്നത് ബുക്സിൽ ആയിട്ട് വെക്കാൻ പറ്റിയ ഉള്ളതൊക്കെ ബുക്സിലായിട്ട് വെക്കും എന്താ വെച്ചുകഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കാണുമ്പോൾ ഉള്ള ഇത് വ്യത്യാസം ആയിട്ടാണ് അതുകൊണ്ട് അങ്ങനെയും വെക്കാറുണ്ട് കൂടുതലുള്ളത് ഡാറ്റാബേസ് ആയിട്ടാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കില് അങ്ങനത്തെ ഇതിലൊക്കെ വെക്കുമ്പോൾ അത് നഷ്ടപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട് പക്ഷെ ഡാറ്റാബേസിൽ ആകുമ്പോൾ നമുക്കൊന്ന് യൂസ് ചെയ്തു സേവ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ തന്നെ കിടന്നോളും എപ്പോൾ വേണമെങ്കിലും നമുക്കത് മറ്റേതിലേക്ക് മറിക്കാം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയും ചെയ്യാം ഡാറ്റാ ബേസ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് പിന്നെ അതാകുമ്പോൾ കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ട് ഇരുന്നോളും നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് അത് ഷെയർ ചെയ്യാൻ അതിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ കിടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബുക്സിന് അങ്ങനത്തെ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മള് സേവ് ചെയ്തു വെക്കുന്ന രീതിയില് എടുത്ത് വെക്കാറുമുണ്ട് അങ്ങനത്തെ രീതിയില് വെക്കുന്നതുണ്ട് കൂടുതലായിട്ടുള്ളത് ഡാറ്റാ ബേസ് മുഖേനയാണ് കൂടുതലായിട്ട് ഉള്ളത് ഡാറ്റാബേസിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അതിലാണ് കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ട് ഉണ്ടാവുക നമുക്ക് ഏത് കാലത്ത് വേണ നോക്കണമെങ്കിൽ